ആ എനിക്ക് രണ്ട് സ്കൂപ്പ് ഐസ് ക്രീം വേണേര്ന്നു ഏതൊക്കെയാണ് ഏതൊക്കെയാണവിടെ ഫ്ലേവേഴ്സുള്ളത് ബട്ടർ സ്കോച്ചുണ്ടോ ബട്ടർ സ്കോച്ചുണ്ടോ ഈ ബട്ടർ സ്കോച്ച് എനിക്കൊരു കോണില് രണ്ട് ഫ്ലേവേഴ്സ് വേണം ബട്ടർ സ്കോച്ചും പിന്നെ ഏതാണതിൻ്റെ കൂടെ യോജിച്ച് പോവുന്നൊരെണ്ണം

ആണല്ലേ ഓക്കേ പിന്നെ വാനിലയും വേണമായിരുന്നു

അതെ എനിക്ക് ഇല്ല വേണ്ട അത് വേണ്ട എനിക്ക് ഒരു ചോക്ലേറ്റ് കോട്ടഡായിട്ടുള്ള കോണില് ബട്ടർ സ്കോച്ചും അതിന്റെയൊപ്പം ചോക്ലേറ്റും പിന്നെ വേറൊരു ചോക്ലേറ്റ് കോട്ടഡായിട്ടുള്ള കോണില് തന്നെ ഒരു വാനില ഐസ്ക്രീമും അതിൻ്റെ കൂടെയൊരു സ്ട്രോബെറി ഐസ്ക്രീമും ആ ഇതിൻ്റെ മുകളില് ടോപ്പിംഗ്സായിട്ടെന്തൊക്കെ വറൈറ്റീസാണ് ഉള്ളത് നിങ്ങളുടെയടുത്ത് ആണല്ലേ എനിക്ക് ചെറിയും ടുട്ടി ഫ്രൂട്ടിയും പിന്നെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും ആ ഓക്കേ ഇതു രണ്ട് മതി ആ ഇതിനെത്രയാണ് റേറ്റെത്രയാണു വരിക ആണല്ലേ അപ്പോള് ഇപ്പോള് ഇത് ഇത് ആ ആണോ അപ്പോള് ഇതു രണ്ടും അപ്പോള് എനിക്ക് സിക്സ്റ്റി സിക്സ്റ്റി വൺ ട്വൻറ്റിയാവില്ലേ മൊത്തം നൂറ്റി ഇരുപത് നിങ്ങളുടെ ഡെലിവറിയുണ്ടോ നിങ്ങൾക്ക് ഹോം ഡെലിവറി ആയിക്കോട്ടെ ഞാനിപ്പോള് ഈ നമ്പറിലേക്കെന്തായാലും എൻ്റെ ലൊക്കേഷനൊന്ന് സെൻഡ് ചെയ്യാം എത്രയും പെട്ടെന്ന് ഒന്നെത്തിക്കണേ ഓക്കേ ഓക്കേ ഓക്കേ താങ്ക് യു കെട്ടോ ശരി